ഇത് വെറ്റിനറി ഹോസ്പിറ്റലിലെ കല മേഡം ആണോ ഉം മേഡം എനിക്കൊരു പെറ്റ് ഉണ്ട് പോമറേനിയൻ ആണ് ആ അതിന് മേത്തൊക്കെ നിറച്ച് ടിക്ക്സ് ആണ് അപ്പോൾ എപ്പഴും ചൊറിച്ചിൽ ഒക്കെ ആണ് ഫുള്ള് കുറച്ച് ദിവസം ആയി അതിന് നല്ല ചൊറിച്ചിൽ അപ്പം ഞാൻ ഇന്നലെയാണ് മനസ്സിലായത് ഫുള്ള് ടിക്ക് ആണെന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത് ആ ഓക്കെ മേഡം അപ്പോൾ നാല് ദിവസം മേത്ത് മൊത്തം വേപ്പെണ്ണ വെള്ളത്തിൽ മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കണം അല്ലേ

ആ ഓക്കെ അപ്പം നാല് ദിവസം ചെയ്ത് നോക്കിയിട്ട് മാറിയിട്ടില്ലെങ്കിൽ പതിനൊന്ന് മണി ആ ഓക്കെ ഓക്കെ മേഡം

ആ ഇയർലി എപ്പഴും നമ്മൾ എടുക്കാറുണ്ട്

ആ ഈ വർഷത്തെ എടുത്തിട്ടില്ല

ആ ഓക്കെ ഓക്കെ മേഡം പിന്നെ പിരീഡ്സ് ആവാനെ ആ ഇപ്പോൾ സിക്സ് മന്ത്സ് ആയി ഇതുവരെ ആയിട്ടും പിരീഡ്സ് ആയിട്ടില്ല അപ്പോൾ ഒരു ടെൻഷൻ ആ സിക്സ് മന്ത്സ് ആയി ആ ഫുഡിൻ്റെ കാര്യം എന്തെങ്കിലും

ആ ആ ഓക്കെ മെഡം

ആ ആ ഓക്കെ മാം താങ്ക് യു